പൂക്കളെയും പൂന്തോട്ടങ്ങളെയും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമെന്ന് തോന്നുന്നില്ല ഏകദേശം എല്ലാ പ്രായത്തിലുള്ളവർക്കും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നൊരു കാഴ്ച തന്നെയാണ് പൂക്കൾ പൂന്തോട്ടവും വലിയ രീതിയിൽ പൂന്തോട്ടം ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാവരും വീട്ടിൻ്റെ മുന്നില് ഒരു ചെറിയ രീതിയിലുള്ള പൂന്തോട്ടം എല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്

കാലത്തിനും അനുസരിച്ചിട്ടുള്ളത് ഉള്ളൊരു പരിപാലനം എല്ലാ ചെടികൾക്കും ആവശ്യമുണ്ട് പൂക്കൾ എല്ലാ സമയത്തും ഒരുപോലെ പിടിക്കണമെന്നില്ല അതിനനുസരിച്ച് നമ്മള് വളം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കീടനാശിനികളും ചില പൂക്കള് വളരെ ദിവസങ്ങള് നീണ്ട് നിൽക്കും ചില പൂക്കള് അങ്ങനെയല്ല ഒരു ദിവസം കൊണ്ട് വാടിപ്പോവുന്ന പൂക്കളുണ്ട് ഈ പൂക്കളുടെയും ചെടികളുടെയും ആരോഗ്യമെന്നു വെച്ചാല് നമ്മളെപ്പോലെ തന്നെ ശരിയായൊര് രീതിയിലുള്ളൊരു പരിപാലനം അതിനും ആവശ്യമുണ്ട് ചില ചെടികള് ഓരോരോ സീസണിൽ കട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ചെല പൂക്കള് ചെടികള് അങ്ങനെയല്ല അത് വലിയതായതിന് ശേഷം മാത്രമേ അത് പൂ പിടിക്കുന്നുള്ളു അപ്പോൾ നമ്മള് മെയ്നായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചട്ടികള് തന്നെയാണ് ചട്ടികള് അല്ലാതെയും പൂക്കള് നിലത്ത് തന്നെ നേരി നേരിട്ട് നട്ടും വളർത്തുന്നുണ്ട് അപ്പോൾ ചട്ടികളില് നടുമ്പോഴ് മണ്ണ് മാത്രല്ല അതിൻ്റെ ഒന്നിച്ച് ചകിരിപ്പൊടിയോ പൂഴിയോ എന്തെങ്കിലും കൂടി ഒന്ന് മിക്സ് ചെയ്താല് അത് മണ്ണുറക്കാതെ ചെടികളുടെ വേര് പെട്ടന്നിറങ്ങിച്ചെല്ലാനും സഹായിക്കും അത് ചെടിയുടെ വളർച്ചയും ബാധിക്കുന്നുണ്ട് മണ്ണുറക്കുംന്തോറും വേരുകള് ഇറങ്ങിച്ചെല്ലുന്നത് കുറയും അത് ചെടി അവിടെത്തന്നൊരു വളർച്ചയില്ലാതെ മുരടിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ചട്ടിയില് മണ്ണ് നിറക്കുമ്പഴാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് അതിന് പ്രത്യേകം ഉപകരണം ഒന്നും ആവശ്യമില്ല ചില കാര്യങ്ങളില് മാത്രേ നമ്മള് ഉപകരണംന്നില്ല രീതിയിലോട്ട് പോകുന്നുള്ളൂ പിന്നെ കട്ട് ചെയ്യാനുള്ള കത്രിക സിസ്സിർ അങ്ങനത്തെ കത്രികയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെന്താ ഉപയോഗിക്കാറ് ആ മണ്ണളക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒരു ഇളക്കിക്കൊടുക്കുന്ന ഒരു ഉപകരണമുണ്ട് പിന്നെ വെള്ളമൊഴിക്കുന്ന കാര്യത്തില് പൈപ്പ് തന്നെ വെള്ളമൊഴിക്കാറ് പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാറാണ് പതിവ് പിന്നെ ചെടികള് കട്ട് ചെയ്തിട്ട് നടുമ്പൊഴ് ചെറി ചെറിയ കുഴികളുണ്ടാക്കിയിട്ട് ഈ ഇരുമ്പിൻ്റെ ഇത് ഉപയോഗിച്ച് തന്നെ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കിയിട്ട് നടാം അല്ലാതെ ചട്ടിയില് നമുക്ക് നടാം പിന്നെ മഴക്കാലത്ത് വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുമെങ്കിലും ചില ചെടികൾക്ക് അത് അത്ര ഉപകാരപ്രദമല്ല അപ്പോൾ അങ്ങനുള്ള ചെടികളെ നമ്മളധികം മഴയില്ലാത്ത സ്ഥലങ്ങൾല് വയ്ക്കേണ്ടതുണ്ട് നാട്ടു ചെടികളാണെങ്കിൽ അതൊര് കുഴപ്പമില്ല എല്ലാ സീസണിലും ഏകദേശം ഒരുപോലെതന്നെ വളർച്ചയുണ്ടാവും മഴക്കാലത്ത് പൊതുവെ സൂര്യപ്രകാശത്തിൻ്റെ കുറവുണ്ടെങ്കിലും ചെടികളെ അത് ബാധിക്കുന്നൊന്നുല്ല പിന്നെ ബോഡറായിട്ടുള്ള ചെടികളാണെങ്കില് അത് നല്ല രീതില് കട്ട് ചെയ്ത് നിലനിർത്തിയാൽ മാത്രമെ അതിൻ്റെ തനതായ ഭംഗി ലഭിക്കുന്നുള്ളു പിന്നെയുള്ളത് വലിയ വലിയ മരങ്ങള് പോലെയുള്ള അത്രയും വളർച്ചയെത്തിയിട്ട് കൂട്ടമായിട്ട് പിടിക്കുന്ന ചില പൂക്കളൊക്കെയിണ്ട് അതിനെക്കുറിച്ചും കൂടി സ്ഥലം ആവശ്യവാണ് ഉപകരണമെന്നുള്ള രീതിയില് അ നമ്മള് സാധാരണ ഒരു വീടിൻ്റെ മുറ്റത്തോ ഇത് പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വലിയ ഉപകരണങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇതുപോലെതന്നെ ഇപ്പം പറഞ്ഞപോലെതന്നെയുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങൾ മാത്രമെ ഉപയോഗിക്കുന്നുള്ളു